അച്ചടി മാധ്യമങ്ങൾ പത്ര മാസിക നമ്മള്ക്ക് വായിച്ചു മനസ്സിലാക്കാം പറ്റുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് നമുക്കെപ്പോഴെങ്കിലും സമയം കീട്ടുമ്പോള് പത്രം നമ്മൾ ഫ്രീയായിട്ടിരിക്കുന്ന സമയങ്ങളിൽ പത്രമോ ഒക്കെ വായിച്ചും നമുക്ക് സമയം കിട്ടുമ്പോള് മാസികകൾ വഴി വായിച്ചും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നു അതേ സമയം നമ്മള്ക്ക് ദൃശ്യ മാധ്യമങ്ങൾ നമ്മള്ക്കത് വാർത്ത വായിക്കുന്നതോടൊപ്പം നമുക്കത് കണ്ടു മനസ്സിലാക്കാനായിട്ടും ഇങ്ങനെ ഓരോന്ന് നടക്കുന്നതും ഡെയിലി ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്താണെന്ന് കണ്ടു മനസ്സിലാക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു ഇപ്പോള് എൻ്റെ അഭിപ്രായം ദൃശ്യ മാധ്യമങ്ങളാണ് ഒന്നുംകൂടി നമുക്ക് ഉപകാരപ്രദമാണ് പക്ഷെ നമുക്ക് എല്ലായ്പ്പോഴും അത് നമുക്ക് അവൈലബിളല്ല അതിനാല് നമുക്ക് രണ്ടും നമ്മള്ക്ക് ജീവിതത്തില് നല്ല ഉപയോഗമുള്ള സാ ഉപയോഗമാണ് ഏതായാലും കൂടുതലായിട്ടും ദൃശ്യ മാധ്യമങ്ങളെയാണ് ദൃശ്യ മാധ്യമം കേൾക്കുകയും കാണുകയും ചെയ്യും അല്ലേ അതു തന്നെയാണ് നമ്മള്ക്ക് വളരെ അധികം